ഞാൻ കൊല്ലത്തോട്ട് പോകുന്നതിന് വേണ്ടി ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ പോവാൻ വേണ്ടി ആയിരുന്നു അപ്പം ഞാൻ അഡ്വാൻസായിട്ട് കുറച്ച് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അഡ്വാൻസായിട്ട് പക്ഷേ എനിക്ക് ചില കാരണം കൊണ്ട് ഞാൻ ക്യാബ് ക്യാൻസല് ചെയ്തിരുന്നു എനിക്ക് പെട്ടന്ന് കുറച്ച് അസുഖം വന്നപ്പോൾ എനിക്ക് ആ യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി അപ്പം ഞാൻ ക്യാബ് ബുക്ക് ചെയ്തതും ക്യാൻസല് ചെയ്തു പക്ഷേ ഞാൻ ഓൾറെഡി കുറച്ച് പേയ്മെന്റ് അഡ്വാൻസ്സായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ പേയ്മെന്റ് എനിക്ക് റീഫണ്ട് ചെയ്തു കിട്ടണം അപ്പം അതിന് അതിന് വേണ്ടിയാണ് ഞാൻ അതെങ്ങനെ ഇപ്പം ഈ റീഫണ്ട് ചെയ്യുന്നത് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തന്നാലത് ഉപകാരമായി ഞാൻ ഓൾറെഡി പേ അഡ്വാൻസായി പേ ചെയ്തതാണ് പക്ഷെ എനിക്ക് ക്യാബ് പെട്ടെന്നായിരുന്നു ക്യാൻസല് ചെയ്യേണ്ടി വന്നത് എൻ്റെ ഭാഗത്തു വന്ന മിസ്റ്റേയ്ക്കാണ് പെട്ടന്ന് ഇതേപോലൊരു ആവശ്യം വന്നപ്പോൾ എനിക്ക് സുഖമില്ലാതെ വന്നപ്പോഴാണ് എനിക്ക് ബുക്ക് ബുക്ക് ചെയ്ത ക്യാബ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത് അപ്പോൾ എൻ്റെ യാത്രയും ക്യാൻസലായി അപ്പോൾ പക്ഷേ ഞാൻ ഇതുകണക്ക് ഓൾറെഡി ഞാൻ കുറച്ച് പേയ്മെന്റ് അഡ്വാൻസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് എൻ്റെ അക്കൗണ്ടിലോട്ട് തിരിച്ച് തിരികെ കിട്ടണം എനിക്ക് ആൾറെഡി എനിക്ക് ഗൂഗിൾ പേ ഉണ്ട് അപ്പോൾ ഗൂഗിൾ പേ വഴി എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ അഡ്വാൻസ്സായിട്ട് തന്ന പേയ്മെൻ്റെ എനിക്ക് ഇട്ടു തന്നാൽ വളരെ ഉപകാരം ഗൂഗിൾ പേ വഴി ആണെങ്കിൽ എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടു തന്നാൽ അത് ഉപകാരായിരിക്കും ഞാൻ അഡ്വാൻസ്സായിട്ട് കുറച്ച് അതായത് അഞ്ഞൂറൂപ അഡ്വാൻസ് പേ ചെയ്തതാണ് ആ പൈസ എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടു തരണം